സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉള്ള അതായത് സന്ദർശകർക്ക് കൂടുതൽ അറിയണമെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് മ്യൂസിയങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കേരളത്തിൽ ഇപ്പം ഏതൊരു ജില്ലയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മ്യൂസിയം എങ്കിലും ഇല്ലാത്ത ജില്ല നമുക്ക് വളരെ വിരളമാണ് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ ജില്ലകളിലും നമുക്ക് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ സന്ദർശകർക്ക് സന്ദ സന്ദർശകർക്ക് സന്ദർശിക്കാനുള്ള പിന്നെ ടൈമും കാര്യങ്ങളും അതായത് എല്ലാ ഹോളിഡേയ്സിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും പിന്നെ ചെറിയ തുക എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതായത് മ്യൂസിയത്തിൽ കയറാൻ കൊടുക്കണ കൊടുക്കേണ്ടിയൊക്കെ വരും എന്നാലും നമുക്ക് ആ പൈസയ്ക്ക് ഒന്നും നമുക്ക് അതായത് ആ പൈസയ്ക്ക് ഉള്ളത് കാണാനില്ല എന്ന് നമുക്ക് പറയാൻ ഉണ്ടാവില്ല ഏതൊരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കാണാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ടാകും ഇപ്പം നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്ത് തന്നെ നേപ്പിയർ മ്യൂസിയം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അങ്ങനെയുള്ള ഒരുപാട് മ്യൂസിയങ്ങൾ ഇപ്പോൾ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള നമ്മുടെ കോഴിക്കോട് തന്നെയുണ്ട് മ്യൂസിയങ്ങളൊക്കെ അപ്പൊന്ന് വെച്ചാൽ നമുക്ക് അതൊക്കെ സന്ദർശകർക്കു ഒക്കെ കാണാൻ ഭയങ്കര ഒരു ആകാംക്ഷയായിട്ട് കാണാൻ പറ്റും